ഞാൻ ഹോട്ടലുകളിലൊക്കെ പോയി എന്താ കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ബിരിയാണിയാണ് കഴിക്കുക ബിരിയാണി പൊറോട്ട അങ്ങനെ ഹസ്ബൻഡ് മേടിച്ചു തരില്ല കാരണം പൊറോട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറുവേദന എടുക്കും എന്ന് പറഞ്ഞ് മൈദ ആയതുകൊണ്ട് അങ്ങനെ മേടിച്ച് തരാറില്ല കൂടുതലും ബിരിയാണിയാണ് കഴിക്കാറ് കഴിക്കാൻ എന്തുവേണമെങ്കിലും മേടിച്ച് തരും അപ്പോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അങ്ങനെ കഴിക്കാറില്ല പക്ഷേ എന്ത് ഇഷ്ടം എന്ന് പറഞ്ഞാലും ലാസ്റ്റ് നമ്മൾ ബിരിയാണി ബിരിയാണിലേക്കാണ് എത്താറ് അപ്പോൾ ബിരിയാണിയാണ് കൂടുതലായിട്ടും ഹോട്ടലുകളിൽ നിന്ന് കഴിക്കാറ് പിന്നെ സാധാ ചോറ് കഴിക്കാറുണ്ട് അങ്ങനെ അധികം സാദാ ചോർ ഒന്നും കഴിക്കാറില്ല പിന്നെ അതുപോലെതന്നെ മസാല ദോശയൊക്കെ കഴിക്കാൻ പോവായിരുന്നു നമുക്കിവിടെ ദോശയ്ക്ക് മാത്രമുള്ള സ്പോട്ടൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ പോയിട്ട് മസാല ദോശ അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഓഫ് ദോശകള് അങ്ങനെയുള്ളതൊക്കെ കഴിക്കാനൊക്കെ പോകാറുണ്ടായിരുന്നു പിന്നെന്ന് വച്ച തട്ടുകടകളിൽ തട്ടുകടകള്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടുകടകളിൽ പോവാറുണ്ട് അങ്ങനെ അധികം ഒന്നും അങ്ങനെ പോ കഴിക്കാറില്ല പഴയ എണ്ണ ആയതുകൊണ്ട് അങ്ങനെ മേടിച്ചു തരാറില്ല തട്ടുകടകളിൽ നിന്ന് എന്നാലും വല്ലപ്പോഴും ഇടക്കൊക്കെ മേടിച്ച് തരാറുണ്ട് അപ്പ അവിടുന്നൊക്കെ ഞാൻ പത്തല് അതായത് പത്തിരീം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ ചില്ലി അങ്ങനത്തെയൊക്കെയാണ് മേടിച്ച് തരാറ് അപ്പോൾ എനിക്ക് അതാണ് കഴിക്കാനും ഇഷ്ടം പിന്നെ പൂരിയൊക്കെ ഒരു പ്രാവശ്യം എങ്ങാനും പൂരിയൊക്കെ മേടിച്ചു കഴിച്ചിട്ടുള്ളൂ കൂടുതലും പത്തിരിയും ചിക്കൻ സിക്സ്റ്റി ഫൈവൊക്കെയാണ് മേടിക്കാറ്